മലയാളഭാഷ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് നല്ല വെല്ലുവിളികളാണ് നേരിടുന്നത് പക്ഷേ മലയാളം മാത്രം സംസാരിക്കാൻ കഴിയില്ല വേറെ നാട്ടിൽ പോയാൽ പല ഭാഷകളുമുണ്ടാവും മലയാള ഭാഷ ആകെ കേരളത്തിൽ മാത്രമേ ഉള്ളു സംസാരിക്കാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നത് പിന്നെ കേരളത്തിൽ പതിനാല് ജില്ലകളാണല്ലോ ആ പതിനാല് ജില്ലകളിലും പതിനാല് തരത്തിലുള്ള മലയാളമാണ് നമ്മൾ സംസാരിക്കുന്നത് പിന്നേ തിരുവനന്തപുരത്തുള്ള ആൾക്കാർ പറയുന്നത് മലയാള ഭാഷ മലപ്പുറത്തെ ആൾക്കാർക്ക് മനസ്സിലാകണം എന്നില്ല കാസർഗോഡിലെ ഭാഷ കേട്ടാൽ കേട്ടാൽ ചിലപ്പം നമുക്ക് തീരെയും മനസ്സിലാവില്ല കാരണം ഓൽക്ക് വേറെ ശൈലിയാണ് വേറെ രൂപത്തിലാണ് മലയാളം പറയുന്നത് ഇന്ത്യയിലും കേരളത്തിലും മാഹിയിലും പുതുച്ചേരിയിലുമൊക്കെ മലയാളം സംസാരിക്കുന്നത് മലയാളമാണ് സംസാരിക്കുന്നത് മലയാളം ഒരു ദ്രാവിഡ ഭാഷയാണ് ഇന്ത്യാ ഭരണഘടന ഘടനയിൽ പറഞ്ഞിട്ടുള്ള ഔദ്യോഗിക ഔദ്യോഗിക ഭാഷേയിൽ ഒന്നാണ് മലയാളം മലയാള ഭാഷയെ കൈരളിയെന്നും പറയുന്നുണ്ട് ഇപ്പോൾ കേരളത്തിന് കുറേ കേരളത്തിൽ കുറേ ആൾക്കാർ വേറെ രാജ്യങ്ങളിലേക്ക് പഠിക്കാനും ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അത് അതുകൊണ്ട് ലോകത്തിൽ ലോകത്തിൻ്റെ കുറേ സ്ഥലത്ത് മലയാള ഭാഷയുണ്ട് കാനഡയിലും ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലും ഖത്തറ് ദുബായി സൗദി അങ്ങനെയുള്ള കുറേ സ്ഥലത്ത് കേരളത്തിന് കേരളത്തിന് പോയ പോയ ആളുണ്ട് അവിടെ കുറേ പീടികൻ്റെ ഒക്കെ ബോർഡുകൾ എന്താണ് നമ്മളെ മലയാള ഭാഷയിലാണ് എഴുതി വച്ചിട്ടുള്ളത്